സമൂഹത്തിൽ ഇപ്പോൾ ആദ്യമുള്ള യുവാക്കളൊക്കെ എന്നാലും പാരമ്പര്യ കാര്യങ്ങൾ പഠിക്കാനും അതില് താല്പര്യം കാണിക്കുകയും ചെയ്യുന്നതായി കാണുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇതിലുള്ള യുവാക്കൾ എന്നുവെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സമ്പ്രദായങ്ങൾ പുതിയ രീതികൾ പുതിയ ലൈഫ് സ്റ്റൈൽ എന്നിവയൊക്കെ എന്നിവയൊക്കെ എന്നിവയൊക്കെയാണ് അവർക്ക് താല്പര്യം കൂടുതലും ഡ്രസ്സിങ്ങിലും അതുപോലെ സംസാരത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിലെ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ പോലും യുവാക്കൾ ഇന്ന് പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഇനി പുതിയ പുതിയ തരത്തിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് അവരുടെ അവരുടെ സംസാരത്തിൽ പോലും നമുക്കത് കാണാം അവര് പുതിയ ലൈഫ് സ്റ്റൈൽ എന്നു വെച്ചാൽ മുടികൾ മുടിയിലും മുടിയിലായാലും അവരുടെ ഡ്രസ്സിങ്ങിലയാലും അവരുടെ പെരുമാറ്റത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കൾ കാണിക്കുന്നുണ്ട് പാരമ്പര്യത്തിൽ എന്നുവെച്ചാൽ എല്ലാവരും അല്ല ചില ചില യുവാക്കള് കഴിഞ്ഞ പാരമ്പര്യത്തില് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ താല്പര്യം അവരുടെ പാരമ്പര്യ രീതിയിലാണ് അവരുടെ അച്ചടക്കവും അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണത്തിൽ പോലും അവർ പണ്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബ കുടുംബത്തിലെ അംഗം എന്ന രീതിയിൽ അവർ കാണിച്ചുവരുന്നുണ്ട് എന്നാൽപ്പോലും കൂടുതലായി അല്ലെങ്കിൽ മജോറിറ്റി എല്ലാവരും തന്നെ പുതിയ ലൈഫ് സ്റ്റൈൽ തേടിപ്പോകുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലും നിലനിൽക്കുന്നത്